അതേ അതേ കാരന്തൂർ പ്രിൻസിപ്പൽ ആണ് ഇത് ആരാണ് സംസാരിക്കുന്നത് ഓക്കേ സാർ എന്തായിരുന്നു വേണ്ടത് ഓക്കേ ആ കുട്ടി എത്രയിലാണ് പഠിക്കുന്നത് ഏത് സ്റ്റാൻഡേർഡിൽ ആണ് ഓക്കേ നമുക്ക് പോഷൻസ് ഒക്കെ ഏകദേശം കവർ ആയി നിങ്ങൾ എപ്പഴ് ഓക്കേ ഈ അടുത്ത് എങ്ങാനും വന്ന് ചേർക്കുന്നുണ്ടോ ഈ ആഴ്ചക്കുള്ളിൽ ഓക്കേ ജോയിൻ ചെയ്യുന്നത് നെക്സ്റ്റ് വീക്ക് ആണോ ഓക്കേ സാർ അപ്പം നമുക്ക് ഇപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് ക്ലാസ് ഏകദേശം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അപ്പം നിങ്ങൾ എത്രയും വേഗം കൊണ്ട് ചേർക്കുവാണെങ്കിൽ അവർക്ക് ഇതിൻ്റ ഒപ്പം ഇപ്പോഴത്തെ പോർഷൻസിന്റെ ഒപ്പം പഠിച്ച് പോവാൻ പറ്റും ഓൾമോസ്റ്റ് ചിലപ്പോൾ അവർക്ക് മുൻപിലോട്ട് ആയിരിക്കും പോർഷൻസ് ചിലപ്പോൾ പുറകിലോട്ട് ആയിരിക്കും അപ്പം വേഗം ചേർക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ ഒപ്പം പോവാം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ ഇത് ഒരു പ്രൈവറ്റ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡോണേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം സാർ വരുമ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കണെങ്കിൽ നേരിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ ഇപ്പം സംസാരിക്കാം യൂണിഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽനിന്ന് തന്നെയാണ് പിന്നെ കൊടുക്കുന്നത്

ഓക്കേ നമുക്ക് ഡോണേഷനും ഇപ്പം പെട്ടെന്ന് ആയതുകൊണ്ട് സാറിന് ഡോണേഷന്റെ മാത്രം തുക തരുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള തുക നമ്മുടെ അതായത് ഫീ ആയിട്ട് വരുന്നത് നമുക്ക് പിന്നെ ഇൻസ്റ്റാൾമെന്റ് പോലെ ഇടുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സാറിൻ്റെ ഇഷ്ടം പോലെ തന്നാൽ മതി യൂണിഫോമിന്റെ മെഷർമെന്റും നമുക്ക് അന്ന് തന്നെ എടുക്കാം ഓക്കേ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ സാർ വരുവാണെങ്കിൽ നമുക്ക് കുട്ടീനേ കണ്ട് സംസാരിക്കുകയും ചെയ്യാം ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ ഇപ്പം നമുക്ക് ചേർത്തിട്ട് ചേർക്കുകയും ചെയ്യാം എന്നാൽ പിന്നെ അന്ന് വേണമെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കാം അല്ലെങ്കിൽ പിറ്റേ ദിവസം തൊട്ടിട്ട് കുട്ടിക്ക് ക്ലാസ്സിൽ വരാം അങ്ങനെ അല്ലാ നമുക്ക് ടി സി ടി സി മാത്രം കൊണ്ട് വന്നാൽ മതി സാർ സാർ ആയിരിക്കുമല്ലോ വരുന്നത് ഓക്കേ ഓക്കേ സാർ ടി സിയും ആയിട്ട് വന്നാൽ മതി നമുക്ക് കുട്ടീനേ അന്ന് ക്ലാസ്സിൽ ഇരുത്തുന്നുണ്ടെങ്കിൽ അധികം ബുക്ക് ഒന്നും വേണ്ട ജസ്റ്റ് ഒരു റഫ് നോട്ട് കൊടുത്ത് വിട്ടാൽ മതി നമുക്ക് ഒന്ന് പരിചയപ്പെട്ട് വന്ന് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് കുട്ടിയുടെ പഴയ ബുക്കുകളും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് മനസ്സിലാവുമല്ലോ നിർത്തണമെന്നുണ്ടെങ്കിൽ സാറിന് നിർത്താം അല്ലെങ്കിൽ സാറിന്റെ കൂടെ കൂട്ടാം ചേർത്ത് കഴിഞ്ഞിട്ട് സാറിന്റെ ഇഷ്ടം അപ്പം എന്തായാലും നിങ്ങൾ നെക്സ്റ്റ് വീക്ക് പോര് കേട്ടോ ഓക്കേ ഓക്കേ നമുക്ക് അത് ഇവിടെനിന്ന് സംസാരിക്കാം കാരണം ഡോണേഷനും ഇത് ഒരു പ്രൈവറ്റ് സ്കൂൾ ആവുമ്പോൾ സാറിന് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം ആയിരിക്കും സാർ വരുവാണെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഓക്കേ താങ്ക്യൂ സാർ